ആ ആ പറയൂ ഓ പുതിയ അഡ്മിഷൻ ആണല്ലേ ആ ഓക്കെ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ ഫീസ് വന്നിട്ട് അഞ്ഞൂറ് രൂപ ആണ് മാസം മന്ത്ലി

ആ രാവിലെ ആ രാവിലെ അഞ്ചര തൊട്ട് ഒമ്പത് മണി വരെ ഉണ്ടാവും മോർണിംഗ് ടൈം ഈവനിംഗ് ആ ആ ആറ് ടു ഒമ്പത് ഡെയിലി ഉണ്ടാവും ഞായറാഴ്ച്ച മാത്രം രാവിലെ മാത്രമെ ഉണ്ടാവുകയുള്ളൂ ഞായറാഴ്ച്ച ഞായറാഴ്ച്ച മാത്രം രാവിലത്തെ സെക്ഷൻ മാത്രം ഉണ്ടാവുകയുള്ളൂ ആ ഈവനിംഗ് ഉണ്ടാവില്ല ആ അഡ്മിഷൻ ഫീസ് ആയിരം അടയ്ക്കണം മാസം മന്ത്ലീൻ്റെ ഫീ സ്ട്രക്ച്ചറാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അഞ്ഞൂറെന്ന് പറയണത് പിന്നെ നമുക്ക് ഇവിടെ കേട്ടില്ല ആ അത് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം അത് ആ ടൈമിൽ പേ ചെയ്താൽ മതി അല്ല നമുക്കിവിടെ ആ അതിന് അതെ അതിന് ട്രെയിനി ഉണ്ട് അവർ പറഞ്ഞുതരും എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ ഫ്രഷ് ആദ്യം ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എടുത്ത് പെട്ടെന്ന് പോയി എല്ലാം വർക്ക് ഔട്ടും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഓരോ പടി ആയിട്ടാണ് നമ്മൾക്ക് വർക്ക് ഔട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂള്ളൂ അതിനനുസരിച്ച് ആ നമുക്ക് ബിൽഡ് അപ്പ് ചെയ്ത് എടുക്കാം അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഫസ്റ്റ് ആയതുകൊണ്ടേ ഓ ആ എത്തിക്കും ആ ഭാഗത്തേക്ക് ഒന്ന് അങ്ങനെ കോൺട്രോൾ ചെയ്താൽ മതി കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക ആ മാംസം പറ്റുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം പിന്നെ ഫ്രൂട്ട്സ് അതേപോലെ പയറു വർഗ്ഗങ്ങളൊക്കെ നന്നായി കഴിച്ചാൽ മതി ഓക്കെ പായറുവർഗങ്ങള് എന്നാൽ ആ ഫ്രീ ഉണ്ടാവും കാരണം നമ്മൾ ഓരോ ദിവസം ഓരോ ആൾക്കാർക്കും സപ്പറേറ്റ് സപ്പറേറ്റ് ആണ് വർക്ക് ഔട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു ആൾക്ക് ലെഗ്ഗിന് ആണെങ്കിൽ ഒരു ആൾക്ക് ചെസ്റ്റിന് ആയിരിക്കും അങ്ങനെ വർക്ക് ഔട്ട് മാറ്റി മാറ്റി കൊടുക്കും അപ്പോൾ നമുക്ക് മെഷീൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും എപ്പോഴും ആ ഒരു സെക്ഷൻ ഇപ്പോൾ അത് മനസ്സിലായല്ലോ നമുക്ക് വർക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നതിൻ്റെ തന്നെ എല്ലാ മെഷീൻസും അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ കുറച്ച് ഒന്ന് വാം ആയിട്ട് ഒരു ഒരാഴ്ച ആ ജസ്റ്റ് പുഷ് അപ്പും ഒന്ന് റൺ ചെയ്യാനുള്ള സൈക്കിളുകൾ അത് ചവിട്ടി അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുത്തതിനു ശേഷം മാത്രം നമുക്ക് അടുത്ത അതിലേക്ക് പോവാം ചെസ്റ്റിനോ അല്ലെങ്കിൽ ലെഗ്ഗിനോ അതൊക്കെ അടിച്ച് അതും ഒരു ദിവസം ലെഗ്ഗിന് ആണെങ്കിൽ വേറെ ദിവസം ചെസ്റ്റിന് അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോവാം ആ അത് ഇങ്ങന ചെയ്താൽ മതി ജസ്റ്റ് ഒക്കെ ജസ്റ്റ് ജസ്റ്റ് പോയാൽ മതി നമുക്ക് ഓവർ വർക്ക് ഔട്ട് ചെയ്യാണ്ട് കഴിക്കുന്നതിന് അനുസരിച്ചിട്ടുള്ള അതൊന്ന് ബിൽഡ് അപ്പ് ചെയ്ത് മാത്രം കൊണ്ടുപോയാൽ മതി നമ്മക്കിപ്പോൾ ഇത് ഇപ്പോൾ മസിൽ ഗെയിനിന് ആണെങ്കിൽ നമ്മളിപ്പോൾ പ്രോട്ടീൻസോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ പൗഡറുകളോ അല്ലെങ്കിൽ അതൊക്കെ പത്ത് മിനിറ്റ് യൂസ് ചെയ്യേണ്ടി വരും അത് ഒന്നും നോക്കണിലാല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആയിരിക്കാൻ ബോഡി ഫിറ്റിംഗ്സ് മാത്രം വച്ച് നോക്കണുള്ളൂ നമൾക്ക് അതിനിപ്പോൾ ഇങ്ങനെ വർക്ക് ഔട്ട് ചെയ്താൽ എന്നാൽ അങ്ങനെ ഫുഡ് കഴിക്കുക അതായത് രാവിലെ പയറ് മുളപ്പിച്ചിട്ടൊക്കെ കഴിച്ചൂന്ന് പറഞ്ഞാൽ നന്നായിരിക്കും രണ്ട് ദിവസം മുമ്പ് ആ തലേന്നും വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്ത ശേഷം അത് ഒര് തുണിയിൽ കെട്ടി വച്ച് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇത് നല്ല എനർജി കിട്ടും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ജസ്റ്റ്

ആ അപ്പോൾ ഇന്ന് ആ നാളെയോ മറ്റന്നാളോ ആയിട്ട് ജോയിൻ ചെയ്തോളൂ ആ മതി മതി മതി ഓക്കെ അല്ല ആ ഇപ്പോൾ ഇത് ഇപ്പോൾ ആദ്യം കുറച്ച് തന്നിട്ട് പിന്നെ ഒരാഴ്ചയോ രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നാലും മതി നമ്മൾക്ക് ഇപ്പോൾ അതൊക്കെ എങ്ങനെ ഇപ്പോൾ സൗകര്യം പോലെ തന്നാൽ മതി

ഓക്കെ ശരി ശരി